ഞാന് നൃത്തം പഠിച്ചിട്ടില്ല പക്ഷെ ഞാൻ തിരുവാതിര തിരുവാതിര നമ്മുടെ സ്കൂൾ കലോത്സവത്തിനുവേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു സാറിനെ വെച്ചിട്ടാണ് അവര് പഠിപ്പിച്ചത് കുറച്ച് പേരുണ്ടായിരുന്നു കളിക്കാൻ അപ്പം ഹേ അങ്ങനെ ഉള്ളൊരു നൃത്ത തിരുവാതിര ഒരു നൃത്ത കലാരൂപമാണല്ലോ അങ്ങനൊരു അനുഭവം മാത്രമെ എൻ്റെ മനസ്സിലുള്ളു വളരേ കുറച്ചു കഷ്ടപ്പെട്ടായാലും ഞാൻ അത് പഠിച്ചെടുത്തു ഒന്നുല്ലെങ്കിലും സന്തോഷമുണ്ട് ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരുങ്ങി നിന്നതിലും ഓർക്കുമ്പോൾ മെമ്മറിയാണ് നമുക്ക് മറക്കാൻ പറ്റാത്ത അല്ലാതെ എൻ്റെ ഓർമയിൽ ഞാൻ വേറെ വല്ല നൃത്തമൊന്നും ചെയ്തിട്ടില്ല